ഹലോ ഞാനേ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു മറ്റേ നിങ്ങൾ ഈ ആയുർവേദ ആയുർവേദ ചികിത്സക്ക് ഈ കണ്ണിൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ട് അപ്പം അതിനിപ്പോൾ നിങ്ങളുടെ അവിടെ എന്തോ ആയുർവേദത്തിൻ്റെ എന്തോ കണ്ണിൻ്റെ ചികിത്സക്ക് ആയിട്ട് ബന്ധപ്പെട്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതിനെ പറ്റി ഒരു സംശയം ചോദിക്കാനാ അപ്പം എനിക്കാന്നെങ്കിലെ മ്മ് ഒരാഴ്ച്ചയായിട്ട് എൻ്റെ ഈ കണ്ണിനൊരു ചെറിയൊരു മങ്ങൽ പോലെ ചെറിയ ദൂരെ അക്ഷരങ്ങളൊന്നും ശരിക്ക് കാണാനൊന്നും പറ്റുന്നില്ല അതിന് ആ അപ്പം ഞാൻ നേരത്തെ ഞാനിത് പോലെ ഒരുപ്രാവശ്യം എനിക്ക് ഇങ്ങനെ ചെറിയൊരു മങ്ങലുണ്ടായിരുന്ന് പക്ഷെ അന്ന് ഞാൻ വേറെ മറ്റേതിലെ കണ്ണാടിയക്കെ വെച്ചപ്പോൾ കുറച്ച് മാറിയായിരിന്നു അ അപ്പം ഇത് ഇപ്പം ആയുർവേദത്തിൽ എന്തോ ഒരു ചികിത്സ ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞ് അപ്പം അത്

ആ അത് ഈ ഈ ആയുർവേദം ആയത് കൊണ്ടേ ആയുർവേദം ആയത് കൊണ്ട് ഇങ്ങനെ അതിന് ഈ പ്രത്യേകിച്ച് എന്തെങ്കിലും ഈ തലയിലും ഈ ഇതും മരുന്നും പുരട്ടുമോ അങ്ങനെ ആ

ആ അ അ അല്ല അന്ന് കണ്ണാടിയുടെ ഈ ആ ഈ ഈ കണ്ണാടിയുടെ പ്രശ്നം ഒന്നും വെക്കണം അങ്ങനെ ഒന്നും പറയത്തില്ലായിരിക്കും അതിനുവേണ്ടി കണ്ണാടി വെക്കണം ആ അപ്പം എന്നാലും അപ്പം ഈ അതുകൊണ്ട് ഇതിൻ്റെ ചെറിയ ഫലം ഉണ്ട് മറ്റേത് പോലെ അല്ല വലിയ വലിയ ദോഷം ഒന്നും ഇല്ല മറ്റേതോ ദോഷം ഒന്നും ഇല്ല അപ്പം നമുക്ക് ശരിക്കും കണ്ണിന് കാഴ്ച വലിയ ഇതായിട്ട് പ്രശ്നം ഇല്ല പക്ഷെ എന്നാലും ഒരു മൂടലാണ് ഇപ്പം തുടക്കം അതിൻ്റെ അത് അനുസരിച്ചാണ് ആ അപ്പം ആ മൂടൽ വരുമ്പം അത് തുടക്കത്തിലേ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ഇത് മറ്റേ ചികിത്സ മാത്രം അല്ല ഇതും ഉണ്ടെന്ന് ഇങ്ങനെ ആളുകൾ പറഞ്ഞ് അപ്പം അത്